പോളിസിയുടെ ഏജൻറ്റുകളെന്നുവെച്ചാൽ എൻ്റെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു പോളിസി ഏജൻറ്റുണ്ട് അവര് മറ്റുള്ളവരെ കൊണ്ട് പോളിസി എടുപ്പിക്കാന് എടുപ്പിക്കാൻ വേണ്ടിട്ട് ഒരുപാട് കഥകള് അതിനെ കുറിച്ച് നമുക്ക് ഒരു വിശ്വസ്തത കൈവരിക്കാൻ വേണ്ടിയിട്ട് അതുപോലുള്ള ഒരു വിവരിച്ച് ഒരു വിശദീകരണം തന്നെയാണ് ഞങ്ങൾ ക്ക് നൽകാറ് അതേപോലെ നമുക്ക് പോളിസി എടുക്കണം എന്നുള്ള ഒരു തോന്ന തോന്നൽ നമ്മുടെ മനസ്സിൽ അവര് വരുത്തുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ഇൻഫൊർമേഷൻസും അതിലെ പോളിസി നമുക്കെത്ര അടക്കണം എത്ര കിട്ടും ഏത് സമയത്ത് എടുക്കണം എന്നി എന്നിവയെ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അതില് പറയുന്നുണ്ട് അതുപോലെ തന്നെ രേഖകളും നമുക്ക് ലഭ്യമാണ് അവര് വന്ന് പറയുമ്പോൾ തന്നെ പോളിസി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു കാലാവധിയും കാലാവർഷവും എല്ലം അറിയണല്ലോ അപ്പൊൾ ഏതൊക്കെ ഇൻസ്റ്റാൾമെൻറ്റ് എങ്ങനെ അല്ല അതുപോലെ അതിലിപ്പ് മന്തിലിയോ അല്ലെങ്കിൽ ഇയർളിയോ എങ്ങനെയാണതടക്കണ്ടത് എന്നൊക്കെയുള്ള ഒര് ഒരു ഷീറ്റുണ്ട് ഒര് അവരുടെ കാലാ കാലാവധിയും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രേഖയുണ്ട് അതും നമുക്ക് കാണിച്ചന്ന് അതില് വാ വായിച്ച് നല്ലൊരു വിശ്വസ്തത തന്നിട്ടാണ് അതുപോലുള്ള പോളിസികള് നമ്മളെ എടുപ്പിക്കാറും അതുപോലെ എടുക്കാനുള്ള ഒരു മനസ്സ് നമ്മളിലേക്കെത്തിക്കാറും കൂടാതെ വിശ്വാസംന്ന് വെച്ചാല് നമ്മുക്ക് ഒരു പരിധിവരെ വിശ്വസിക്കാം എങ്കിൽ പോലും ഭാഗ്യം പോലിരിക്കും അവസാനം ഇത്ര കിട്ടും അത്ര കിട്ടും അതൊക്കെ വെറുതെയാണ് അത് ചില ചില കാര്യങ്ങളില്ണ്ട് ചില ചില സമയത്തത് അത് പൊട്ടിപ്പോകാനും ചാൻസുണ്ട് പൊട്ട് ഇപ്പം എൻ്റെ അമ്മ തന്നെ ബിസിആർ എന്ന എന്നൊരു ഇതിലെ ഏജൻറ്റ് വഴി കൂടിയിട്ട് തന്നെ അതൊരു പത്തിരുപതിനായിരം രൂപ അടച്ചതിനു ശേഷം അത് പിന്നെ പൈസ വരെ കിട്ടാതായിപ്പോയൊര് അവസ്ഥ വന്നിട്ടുണ്ട്